ആ ഗുഡ് ആഫ്റ്റർനൂൺ ആ ഞങ്ങൾ ഇതൊരു ഇൻഫർമേഷൻ കളെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് കേരള ഫുഡ് അതായത് ഞങ്ങൾ ഒരു ടീം ഓഫ് ആൾക്കാർ കേരള വിസിറ്റ് ചെയുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സ്പെഷ്യലിറ്റീസ് അങ്ങനെയുള്ളത് നോക്ക് അറിയാനും ബ്രേക്ഫാസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെയാണ് വിളിച്ചത് ആാ അതെ ഓക്കേ ഓക്കേ വെറൈറ്റീസ് ഓഫ് ദോശ കിട്ടുവോ അതോ

അതെ അല്ലേ ഓക്കേ ഓക്കേ വേറെ ദോശയുടെ കൂ വേറെ എന്തോക്കെയാണ് പുട്ടൊക്കെ അവൈലബിൾ ആണോ ആ ഓക്കേ ആ പൈനാപ്പിൾ പുട്ട് അങ്ങനെയുള്ളതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ

അതെ അല്ലേ ഓക്കേ ഞങ്ങളിപ്പോൾ ഒരു കുറച്ച് പേർ അതെങ്ങനെയാണ് അവിടെ നിങ്ങളുടെ റസ്റ്റോറൻറ്റിൽ അതെ അല്ലേ ഓക്കേ ഓക്കേ ആ ആ ആ ആ ഓക്കേ ഓക്കേ ആ അതെ അല്ലേ കേട്ടില്ല എക്സ്ക്യൂസ് മീ ഒന്നുകൂടി പറയൂ ഞങ്ങൾ അങ്ങനെ പുട്ട് ഞാൻ ഒരൊറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ കൂറച്ചുകൂടി ആ അതായത് ഒന്നുകൂടി വന്നിട്ട് കേരള വന്നിട്ട് പുട്ട് കഴിക്കണമെന്നുള്ള ആഗ്രഹം ആ അതെ അതെ അതെ അല്ലേ അവിടെ വേറെ സ്പെഷ്യൽ ഇപ്പോൾ ആ ഉഴുന്നുവട അങ്ങനെയുള്ള അദർ ഓപ്ഷൻ കോഫി ആ ആ ആ അതെ അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുന്നത് ഈ മന്ത് ലാസ്റ്റ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വരുന്നതിന് മുന്നേ എന്തായാലും നിങ്ങളുടെ റസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഓ ഓക്കേ ഓക്കേ ഓക്കേ അതെ അല്ലേ ആ ഞങ്ങൾക്ക് എന്തായാലും വെറൈറ്റീസ് ആണ് ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കുറേ പേർ വരുന്നത് തന്നെ ഫുഡിന് കേരള സ്റ്റൈൽ ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ കൂടുതലും വരുന്നത് തന്നെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളൊരുപാട് പ്രതീക്ഷിക്കുന്നു സെർവിങ്ങും ആയിക്കോട്ടെ എല്ലാം വെറൈറ്റി ഓക്കേ ഓക്കേ പൈസ അത് ആ ഓക്കേ ആ അല്ല അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല ഞങ്ങൾ ഫുഡ് അതായത് ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു സംഭവമാണ് കേരള ഫുഡ് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കുറവും വരുത്തരുത് ആ ഓക്കേ ഓക്കേ